നോളേജ് ഈസ് പവർ അറിവ് ശക്തിയാണ് എന്നുള്ളൊരു കോട്ടിങ്ങ് വെച്ചുതന്നെ ഈ ചോദ്യത്തുള്ള മറുപടി ഞാൻ പറയാം അഥവാ വിദ്യാഭ്യാസം എങ്ങനെയാണ് ജീവിതത്തെ സഹായിക്കുകയെന്ന് ചോദിക്കുമ്പോൾ അറിവ് ശക്തിയാണ് എവിടെയും എങ്ങനെ എന്ത് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് അറിയുന്നത് പഠിച്ചിട്ടെടുക്കുന്നത് നമ്മൾ അറിവിലൂടെയാണ് വിജ്ഞാനത്തിലൂടെയാണ് ഒരു സാഹചര്യം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിനെ എങ്ങനെ മറികടക്കണം അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം അതിനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അതിനെ നമ്മൾ ഒത്തു പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് അതുപോലെ ഇന്നത്തെ കാലത്ത് എല്ലാം അറിവ് ബേസ്ഡാണ് അറിവിനും അടിസ്ഥാനമാക്കിയാണ് ജോലികളും ജോലിയും നമ്മുടെ സാമൂഹിക സ്റ്റേറ്റസും എല്ലാം വരുന്നത് അപ്പോൾ അറിവുള്ളൊരാൾക്കേ ഉയർച്ചയുള്ളൂ അറിവുള്ളൊരാൾക്കേ കഴിവുള്ളൂ അറിവുള്ളൊരാൾക്കേ പവർ ഉള്ളൂ അറിവുള്ളൊരാൾക്കേ ശക്തിയുള്ളൂ അപ്പം എന്തിനും അറിവാണ് ഇന്നത്തെ ലോകം അപ്പോൾ അറിവില്ലാത്തൊരാളെ സംബന്ധിച്ചോളം ആളുടെ ജീവിതം കഷ്ടപ്പാടായിരിക്കും എന്നുള്ളതിൽ ഉറപ്പാണ് അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അവരെ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അയാളൊരു വേറൊരാളെ സഹായം തേടേണ്ടി വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്ത് ആവശ്യം വന്നാലും വേറൊരാളെ മറ്റൊരാളുടെ സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളൊരു ഒരു അവസ്ഥാവിശേഷത്തിലാണ് അവരുണ്ടാവുക എന്തുണ്ടായാലും അവർക്ക് സ്വന്തത്തിൽ അതിനെ എങ്ങനെയെങ്കിലും നേരെയാക്കിയെടുക്കാനുള്ളൊരു കഴിവ് അവർക്ക് നഷ്ടപ്പെട്ട് പോകുമെന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ കാലമെന്ന് പറഞ്ഞാൽ എല്ലാവരും വൈറ്റ് കോളർ ജോലികൾക്കുവേണ്ടി അതിനു പിന്നാലെ പോകുന്ന ഇന്ന് ഡിഗ്രി ഇല്ലാത്ത വിദ്യാർത്ഥികൾ എന്നു പറഞ്ഞാൽ വളരെ കുറവായിരിക്കും ഇന്ന് എല്ലാവരും പണ്ട് എസ് എൽ സി കഴിഞ്ഞാൽ ജോലി നോക്കി പോല് നിർത്തി ഇന്ന് എസ് എൽ സി പോരാ പ്രീഡിഗ്രിയും ഡിഗ്രിയും എടുത്ത് അതും പോരാ ഇനി എം എ മാസ്റ്റേഴ്സും എടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കെത്തി എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടം അപ്പോൾ എന്തുകൊണ്ടും വിജ്ഞാനം നമ്മളെ സഹായിക്കും വിദ്യാഭ്യാസം നമ്മുടെ സഹായിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ജോബ് വേക്കൻസികൾ വളരെ കുറഞ്ഞു വരികയാണ് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഒന്നിനും ഒരു ഒഴിവില്ല അപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് വേറൊരു ഭാഷ പഠിച്ചു മറ്റൊരു രാജ്യത്തേക്ക് പോകുകയയും അല്ലെങ്കിൽ എം ബി ബി എസ് എടുത്ത് മറ്റു രാജ്യങ്ങിൽ പോയി രക്ഷപ്പെടുകയെന്നുള്ളൊരു അങ്ങനെ ഈ വളർന്ന് വരുന്ന അണ്ടർ ഡെവലപ്പ്ഡ് ആയുള്ള രാജ്യങ്ങളിലുള്ളവരെയെല്ലാം അങ്ങനെ അവരുടെ പഠനം കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ ഡെവലപ്പ്ഡായ മറ്റു വൻകിട രാജ്യങ്ങളിലേക്ക് പോയി രക്ഷപ്പെടുകയാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് വിദ്യാഭ്യാസമില്ലാത്തവർ ഇന്ന് ഇവിടെ കിടന്ന് കൂലിപ്പണിയാണ് എടുക്കുന്നത് കൂടുതലും നമുക്ക് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലിപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത് ബംഗാളികൾ അല്ലെങ്കിൽ അസ്സാമികൾ മറ്റു ഉത്തരേന്ത്യയിലുള്ള തൊഴിലാളികളെയാണ് അവർക്കവിടെ വിദ്യാഭ്യാസമില്ലാതെ തൊഴിലവസരങ്ങളില്ലാതെ ഇവിടെ വന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനത്തെ നല്ല അവസരങ്ങളാണ്